ജൈവ രാസവളം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയെക്കാളും രാസ ജൈവവളം ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയാണ് ഏറ്റവും നല്ലത് അതാണ് മണ്ണിനും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും എല്ലാം നല്ലത് രാസവളത്തിൽ ഒരുപാട് കീടനാശിനികളും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്നതായ വിഷാംശങ്ങളും നിറയെ രാസവളത്തിലുണ്ട് എന്നാൽ ജൈവളത്തിൽ ഇങ്ങനെയുള്ള ഒരു കീടനാശിനികളും ഇല്ല അത് നമ്മുടെ ശരീരത്തിൽ ചെന്നാൽ നമുക്ക് ഒരു കുഴപ്പവുമില്ല ജൈവവളം എപ്പോഴും പ്രകൃതിക്കിണങ്ങിയ രീതിയിലുള്ള കൃഷി രീതിയിൽ ഉപയോഗിക്കുന്നതാണ് അതാണ് നമ്മുടെ മണ്ണിനും നമ്മുടെ ജീവിത ശൈലിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ജൈവവളം ഉപയോഗിച്ച് ചെയ്യുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് നല്ല രുചിയും അതിൽ പ്രോട്ടീനും കൂടുതൽ അടങ്ങി പ്രോട്ടീനും കൂടുതൽ അടങ്ങിയിരിക്കും ആ കൃഷിരീതി എപ്പോഴും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുമാണ് ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷി രീതിയാണ് ജൈവവള കൃഷി രീതി അതിൽ ഉണ്ടാകുന്ന പഴങ്ങൾ കൂടുതലായി ഉണ്ടാവുകയും നമുക്ക് നല്ല പ്രത്യുൽപാദനശേഷിയുള്ള പഴങ്ങളായിത്തീരുകയും ചെയ്യുന്നു